ഗ്രാമപ്രദേശങ്ങളില് നിരവധി വ്യവസായങ്ങളുണ്ട് ഗ്രാമപ്രദേശ് പ്രദേശത്തുള്ള വ്യവസായങ്ങളേപ്പറ്റി പറയുകയാണെങ്കിൽ ഗ്രാമപ്രദേശ കൃഷികളുണ്ട് ചെറിയ ചെറിയ കമ്പനികളുണ്ട് അങ്ങനെയുള്ള കുറേ കമ്പനികളല്ല ഫാക്റ്ററികളുണ്ട് അങ്ങനെയുള്ള ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് ഗ്രാമപ്രദേശത്ത് കാണാൻ പറ്റും ഗ്രാമപ്രദേശം എന്നു പറഞ്ഞ് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന ഒരു തെറ്റിദ്ധാരണ കൂടുതലാളുകള്ക്കുണ്ട് എന്നാല് ഗ്രാമപ്രദേശത്ത് പലവിധ വ്യവസായങ്ങളുണ്ട് കാരണം ഗ്രാമപ്രദേശമാണല്ലോ ഒരു ഭാരതത്തിന്റെ അല്ലെങ്കില് കേരളത്തിന്റെ അടിസ്ഥാനം കാരണം ഗ്രാമമില്ലാ ഗ്രാമത്തിലൂ ഗ്രാമത്തില് നിന്നാണല്ലോ മറ്റു പട്ടണങ്ങള് ഉള്ത്തിരിഞ്ഞിരിക്കുന്നത് അപ്പം വ്യവസായങ്ങള് എന്നും അനിവാര്യമാണ് ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഒരു ഗ്രാമത്തിന്റെ വികസനത്തിന് വ്യവസായത്തിന്റെ പങ്ക് എന്നു പറയുന്നത് വളരെയധികമാണ് ഒരു വ്യവസായ സം ഒരു സംരംഭകന് ഒരു ഗ്രാമത്തില് ഉയരാൻ പറ്റും കാരണം ഗ്രാമത്തിൽ വിദ്യാഭ്യാസമായിക്കോട്ടേ മറ്റു കാര്യങ്ങളെല്ലാം ഈ വ്യവസായത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു കൊണ്ടെല്ലാം പറ്റും ഒരു വ്യവസായി എന്നു പറയുന്നൊരാൾ ഒത്തിരിയേറേ കാര്യങ്ങളാണ് ഒരു ഗ്രാമത്തിനു വേണ്ടി ചെയ്യുന്നത് ഗ്രാമത്തെ മറ്റു സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കേ ഈ വ്യവസായിയേക്കൊണ്ട് പറ്റും കാരണം കേരളത്തിലുള്ളൊരാൾ ഇപ്പോൾ തന്റെ ഉത്പാദനങ്ങൾ ഉ ഉത്പന്നങ്ങൾ പുറം രാജ്യങ്ങളേക്ക് ക്ക് കയറ്റി വിടുന്നു അവിടെയുള്ള ഉത്പന്നങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുന്നു അപ്പം ഗ്രാമപ്രദേശങ്ങളിലേക്കുമിതെത്തിച്ചേരുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളില് നിന്നുമിത് പുറപ്പെടുന്നുണ്ട് അപ്പം ഗ്രാമപ്രദേശമായിക്കോട്ടേ പട്ടണമായിക്കോട്ടേ വ്യവസായമെന്ന കാര്യത്തിന് അവിടെ അത്യധികം പ്രാധാന്യമര്ഹിക്കുന്നൊന്നാണ് വ്യവസായമില്ലാതെ നിലനില്പ്പില്ല വ്യവസായത്തിലൂടെയാണ് ഓരോ സ്ഥലവും വികസിച്ചു കൊണ്ടിരിക്കുന്നത് വ്യവസായം ഇല്ലാത്തൊരവസ്ഥയില് വികസനമെന്നത് തീര്ത്തും അവ്യക്തമായൊരു കാര്യമാണ് കേരളത്തിലെ നിലവിലെ അവസ്ഥയനുസരിച്ച് ചെറിയ ചെറിയ എം എസ് സീ എം എമ്മികള്ക്കും അതുപോലെതന്നെ അതുപോലെതന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ചെലി ചെറിയ ചെറിയ വ്യവസായങ്ങളും കുരുമുളകായിക്കോട്ടേ കുരുമുളക് കയറ്റു മതി ആയിക്കോട്ടേ ഏലക്കാ കയറ്റുമതി ആയിക്കോട്ടേ എല്ലാം വ്യവസായത്തിന്റെ ഭാഗമാണ് ഈ വ്യവസായങ്ങള് ദിനം പ്രതി ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്